ഞാൻ ഡൽഹിയിൽ നിന്നാരുന്നു ഞങ്ങൾ ന്യൂസ്പേപ്പറിൽ കണ്ട് കുറച്ച് ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് നാട്ടിലേക്ക് ഒന്ന് വരണമായിരുന്നു

ആ ഞങ്ങളുടെ കുറച്ച് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് വരാൻ വേണ്ടി ആയിരുന്നു ഒരു അഞ്ച് ദിവസത്തെ ട്രിപ്പാണ് അപ്പം കുറച്ചൊക്കെ എത്രയൊക്കെ കാണാൻ പറ്റുമോ അത്രയൊക്കെ എനിക്ക് കാണാൻ പറ്റണം ഹിൽ പാലസ് അതുപോലതന്നെ ഇല്ലിക്കൽ കല്ല് പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയണം

ആ പഴയകാല ചരിത്രങ്ങൾ

ആ ആ ആ ഒരുമിച്ചു വേണോ

ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടാഴ്ച കൊണ്ട് അവിടെ എത്തും അത് കഴിയുമ്പോഴുള്ള അടുത്ത ആഴ്ച ആണ് ഞങ്ങൾക്ക് അവിടെ വരേണ്ടത്

ആ ശരി